ഇപ്പോൾ ബൈക്കുകളിൽ യാത്ര ചെയ്യുക ബൈക്കുകളിൽ യാത്ര എപ്പോഴും നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ചില ബൈക്കുകൾക്ക് ഒരുപാട് ബൈക്കുകൾ നമ്മൾ ഒരുപാട് ദൂരം പോവുമ്പോൾ ഒരുപാട് ട നമ്മുടെ വണ്ടിയ്ക്ക് ചിലപ്പോൾ നമ്മുടെ ചെയിൻ ലൂസാവാൻ ചാൻസുണ്ട് അതിനെ കുറച്ച് ടൂളുകൾ വേണം കുറച്ച് സ്ക്രൂഡ്രൈവർ സ്പാനർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേണം പിന്നെ പെട്രോൾ ക്യാൻ വേണം നമുക്ക് പെട്രോൾ അവിടെ എവിടേലും വെച്ച് നിൽക്കുവാണെങ്കിൽ ക്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ മേടിച്ച് ക്യാ തിരിച്ച് വന്ന് വണ്ടിയിൽ ഒഴിക്കാം അങ്ങനെ കുറച്ച് പിന്നെ പഞ്ചർ ഇപ്പോൾ നമ്മൾ ചില ഓഫ്റോഡുകളൊക്കെ ചെയ്യുമ്പോൾ വണ്ടിക്ക് വണ്ടിയുടെ ടയറിൽ എന്തേലുവൊക്കെ ചെറിയ ചെറിയ ആണികളും സ്ക്രൂകളും ഒക്കെ കേറുമ്പോൾ നമുക്ക് പഞ്ചർ പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടിയുള്ള അതിനാവശ്യമുള്ള പശ ഗ്ളൂ അങ്ങനെയുള്ള ഐറ്റംസ് ഇപ്പം ഇപ്പം നമ്മുടെ ലോകത്തിൻ്റെ ഇത് വെച്ച് നമുക്കിപ്പോൾ ഇത് ഇപ്പോൾ സ്റ്റിക്കർ സ്റ്റിക്കർ ഉപകരണത്തിൽ കിട്ടുമ്പൊത്തന്നെ നമുക്ക് ടയർ അഴിച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് നമുക്ക് അങ്ങനെ പോവാം പിന്നെ മെക്കാനിക്കലായിട്ടിപ്പം മെക്കാനിക്കലിലെ നമ്മുടെ ഇപ്പം ഒരുപാട് രീതിയിൽ തന്നെ നമുക്ക് ഇതുണ്ട് നമുക്ക് ടയർ സ്വിച്ച് സ്റ്റെപ്പിനി അങ്ങനെയുള്ള ഒരുപാട് സ